ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് എന്ന് പറഞ്ഞാല് അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമ്പോലെ ഉണ്ട് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പല രീതിലുള്ള അന്ധവിശ്വാസവും കാര്യങ്ങളൊക്കെ ആണ് കൊണ്ട് നടക്കുന്നത് പലരും ഇപ്പോൾ എന്നുപറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ എവിടെ എങ്കിലും ഒരു വീട്ടിൽ പോയിക്കഴിഞ്ഞാല് നമ്മള് ചൊവ്വാഴ്ചദിവസം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് വിടൂല കാരണന്ത് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ഇന്ന് പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിർത്തും കാരണം ചൊവ്വാഴ്ച ദിവസം കൊള്ളില്ല അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടും വീട്ടിലേക്ക് അതായത് വേറൊരു വീട്ടിലേക്ക് മാറിപ്പോവാൻ പാടില്ല അങ്ങനത്തെ പല രീതിയിലുള്ള ആചാരങ്ങള് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ എൻ്റെ ഒരു വൈഫ് ഹൗസിൽ വീട്ടില് വൈഫ് ഹൗസിൽ പോയി കഴിഞ്ഞാല് അവിടത്തെ അമ്മ എന്നോട് പറയും ഇന്ന് പോകാൻ പറ്റില്ല ഇന്ന് പോയി കഴിഞ്ഞാല് ഇന്ന് ചൊവാഴ്ച ആണ് അപ്പോൾ ഇന്ന് പോകാൻ എന്തായാലും പറ്റില്ല എന്ന് പറയും ഇപ്പോൾ ഞാനിപ്പോൾ ഞാ തിങ്കളാഴ്ച ഒരു ദിവസം നിക്കാൻ വേണ്ടീട്ട് വന്നുകഴിഞ്ഞാല് പിറ്റേ ദിവസം എന്നെ വിടില്ല അപ്പോൾ ഞാന് കൂടുതലായിട്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനെന്തു ചെയ്യും ചൊവ്വാഴ്ച ദിവസം പോയിട്ട് ഞാൻ ചിലപ്പോൾ ബുധനാഴ്ച വരും അല്ലെങ്കില് ചിലപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വരില്ല അപ്പോൾ വെള്ളിയാഴ്ച അതേപോലെ തന്നെയാണ് അവസ്ഥ അങ്ങനെ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാറുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ട് ഇപ്പോൾ ഞാനൊരുദാഹരം പറഞ്ഞൂന്ന് മാത്രേ ഉള്ളു അങ്ങനെ പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും